ആ ഹലോ സ്വിഗ്ഗി അല്ലേ എൻ്റെ പേര് രേഷ്മ എന്നാണ് ഞാൻ മുമ്പ് വിളിച്ചിരുന്നു ഞാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്ക് ഞാൻ ആ ഒരു മൈൻഡിൽ ഓർഡർ ചെയ്തതാണെ അപ്പം എനിക്ക് തോന്നുന്നത് അത് വേണ്ടായിരുന്നു എനിക്ക് അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങള് സെൻറ് ചെയ്തിരുന്നോ ഫുഡ് ഇല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യുമോ എനിക്ക് അത് എനിക്ക് ഞാൻ ഗോപി മഞ്ചൂരിയൻ ആയിരുന്നേ പറഞ്ഞത് അതെനിക്കിപ്പോൾ ചിക്കൻ മഞ്ചൂരിയൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒന്നതൊന്ന് ഗോപി മഞ്ചൂരിയൻ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് പ്ലീസ് മാക്സിമം ഒന്ന് ക്യാൻസൽ ചെയ്യ് കെട്ടോ ഓക്കേ താങ്ക്യൂ